ബാങ്കിൽ ജോലി ചെയ്യുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും വളരെ അധികം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാങ്കിലെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നതാണ് ബാങ്കിൽ ജോലി കിട്ടുന്നതിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും പിന്നെ നമുക്ക് പരിചയുള്ളവർകൊക്കെ കുറഞ്ഞ ചിലവിൽ പലിശ കുറഞ്ഞ പലിശ രീതിക്ക് ലോൺ എടുത്ത് കൊടുക്കാനും സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഗുണങ്ങൾ അതുപോലെ തന്നെ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ പൊതുവേ ഫാമിലിയിലും മറ്റുള്ള പുറം സ്ഥലങ്ങളിലും മറ്റുള്ളവരെ മുമ്പിലൊക്കെ ഒരു വില ലഭിക്കുകയും കുറച്ചു നല്ല രീതിക്ക് ഒരു അന്തസോടെ നിൽക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ് ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നത് പിന്നെ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും ബാങ്കിൻ്റെ പുതിയ പുതിയ നിയമങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത് നമ്മൾ ഇപ്പോൾ വേറെ ഒരു ബിസിനസ്സ് തുടങ്ങുകയാണെങ്കിൽ അതിൽ അതിൽ വേണ്ട സാമ്പത്തികം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കൊണ്ട് സാധിക്കും ബാങ്കില് ജോലി ചെയ്യുന്നതിന്റെ ഗുണം അതാണ് നമുക്ക് സാമ്പത്തിക ഇടപാടുകൾ വേഗം മനസ്സിലാക്കാൻ സാധിക്കും

ബാങ്കിൽ അപേക്ഷിക്കുന്നത് കുറച്ചു ബാങ്കിൽ ജോലി കിട്ടുന്ന കുറച്ചു പാടായ കാര്യങ്ങളാണ് കാരണം പി എസ് സി വഴിയും ബാങ്ക് കോച്ചിങ്ങും ഒക്കെ പഠിച്ചിട്ടാണ് പിഎസ്സിയിലേക്ക് ചില ബാങ്കിലേക്ക് ജോലിക്ക് കയറുന്നത് അപ്പോൾ കുറച്ചു പ്രയാസകരമായ കാര്യമാണ് ബാങ്കിൽ ജോലി കിട്ടുക എന്നത് പക്ഷെ കിട്ടുന്നത് ഭയങ്കര ഗുണകരമായ കാര്യമാണ്